ആരായിരുന്നു ആ ആ സോണിയ മനോജ് അല്ലേ ആ തന്നായിരുന്നു ആ ആ ചുമന്ന ചുമന്ന തുണിയല്ലേ ബ്രൌണ് നിറത്തിലുള്ള ആ ചുമന്ന ചേര്ന്ന ആ അത് എങ്ങനെ അത് എങ്ങനെയാണ് തയ്ക്കേണ്ടതെന്ന് ശരിക്കും അതേ അന്ന് കൊച്ച് പറഞ്ഞില്ലായിരുന്നു കൊച്ചല്ലേ കൊണ്ടു തന്നത് അപ്പം അതിന്റെ ഏത് ആ അത് കണ്ടായിരുന്നു ആ അത് കുഴപ്പമില്ല ആ അത് കുഴപ്പമില്ല ആ അത് കുഴപ്പമില്ല ലൈനിങ്ങ് ഇല്ലാതെ തയ്ച്ചാൽ കൊള്ളത്തില്ല അതിന് ഇച്ചിരി കട്ടി കുറവല്ലേ അത് കൊണ്ട് ഇച്ചിരി ലൈനിങ്ങ് ഇട്ട് തയ്ക്കുകയാണെങ്കിൽ അത് ലൈനിംഗ് എടുത്തു കൊടുത്തു വിടേണ്ട ഞാൻ ഇവിടെ നിന്ന് ഞങ്ങളുടെ കടയുടെ അടുത്ത് ഇത് ലൈനിങ്ങ് ഉണ്ട് ഞാൻ അത് എടുത്തിട്ട് അതിന്റെ ആ അതിന്റെ പൈസ കൂട്ടിത്തന്നാൽ മതി അത് കുഴപ്പമില്ല അതിന് ചേരുന്ന അനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ആ അത് അങ്ങനെ കൂട്ടി ചെയ്യുകയാണെങ്കില് നമ്മൾ കോട്ടന്റെ നല്ല തുണി വന്നിട്ടുണ്ട് അപ്പം അതിന് വലിയ ഈ ഒരു കുടുതൽ പൈസ രൂപ ആകുകയില്ല അപ്പം അത് അനുസരിച്ചു നമ്മൾ എടുത്ത് ഞാൻ അത് ചെയ്തോളാം എന്നത്തേക്കാണ് ഇത് വേണ്ടത് ആ ആ എനിക്ക് രണ്ട് മൂന്ന് വര്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് ആണ് പിന്നെ ഞാൻ ഇപ്പം സോണിയയെ എനിക്ക് ഒഴിവാക്കാന് പറ്റത്തില്ലല്ലോ അതുകൊണ്ട് എപ്പോഴും തരുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അത് ഒഴിവാക്കാന് പറ്റത്തില്ല ഞാന് പരമാവധി ശ്രമിക്കും പിന്നെ ഞാൻ ഒരു രണ്ടു ദിവസം കഴിയുമ്പം ഒന്നു കൂടെ ഒന്നു വിളിക്കുമോ അപ്പം ആ ആ എന്നാ ഓക്കെ എന്നാൽ കുഴപ്പം ഒന്നുമില്ല ആ ഓ ഇരുവത് നാലാം തീയതി തരുന്നതിന് കുഴപ്പം ഒന്നുമില്ല ആ അതെ ആ അത് ഇപ്പം ഞാൻ ഈ ഒന്നിന് ഇച്ചിരി കൂട്ടിയാണ് മേടിക്കുന്നത് എന്നു വച്ചാൽ ഞാന് നല്ല രീതിയില് തയ്ക്കുന്നുണ്ട് ആ അപ്പം ചുരിദാറിന്റെ ഇതാണ് ഒന്ന് ഒരു മുന്നൂറ് രൂപ അടുത്ത് വരും അതിന് ലൈനിങ്ങും കൂടി എടുക്കുന്നുണ്ടല്ലോ ആ അല്ല അങ്ങനെ ചിലവർ ഇതിന്റെ ആ അതാണ് ഞാന് നോക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഇച്ചിരി നല്ല രീതിയിൽ തെറ്റാതെ ചെയ്യുന്നുണ്ട് ആ അത് കുഴപ്പമില്ല കുഴപ്പമില്ല ആ നമ്മൾ നിങ്ങളെ പോലെ ഉള്ളവരാണല്ലോ ഞങ്ങള് ജീവിച്ചു പോവുന്നത് ഞങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾ ചെയ്യും ഉം ഉം അത് കുഴപ്പമില്ല ആ ഉണ്ട് നമ്മടെ മിന്നുവിന്റെ അല്ലേ ആ മിന്നു മിന്നുന്റെ ഉണ്ട് ഉണ്ട് അവളുടെ ഉടുപ്പിന്റെ എങ്ങാണ്ട് അത് പോളിസ്റ്റ്റ് കൂടീതാണെങ്കിലാ തയ്ക്കാന് ബുദ്ധിമുട്ടൊള്ളു പോളിസ്റ്റ്റ് കൂടിയതാണ് ആ അങ്ങനെ അല്ല ഉടുപ്പാണോ വേണ്ടത് ആ അത് കുഴപ്പമില്ല ആ ആ ആ ആ ലാച്ച തയ്ക്കുന്നതിന്കു ഴപ്പമില്ല ആ അന്നാ കുഴപ്പമില്ല അത് തയ്ച്ചു അത് കുഴപ്പമില്ല ആ അവക്ക് ലാച്ചയെക്കെ ആവുമ്പം പെട്ടന്ന് നമുക്ക് അതിന്റെ പിന്നെയാ നൂല് ഇടുന്നത് ഇച്ചിരി പാടെ ഉള്ളു അത് നൂൽ എവിടെയാണ് ഇടുന്നത് അത് മേടിച്ച ആ ശരി ശരി ഓക്കെ ആ